ഹലോ മദീന ട്രാൻസ്പോർട്ട്സ് ഏജൻ ഏജൻസി അല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കുടുംബപരം കുടുംബമായിട്ട് ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അവടെ ഒരു റിസോർട്ടും കാര്യങ്ങളും ഭക്ഷണ സൗകര്യവും അതും ഇതൊക്കെ വേണം അപ്പോൾ ട്ടൊര് അതിന് ബഡ്ജറ്റ് എങ്ങനെയാണ് ആവൽ ആ അത് ശരി അത് പത്ത് പത്തിരുപത് ഉറ്പ്പിയ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ നമ്മളിപ്പം വയനാട്ടിലേക്കാണ് ഉദ്ദേശിക്കുന്നത് അത്ര ദൂരം ഇതൊന്നുമില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് ചെയ്യു കാരണം നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ പോവൽ അപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താരാണ്ട് എന്തെങ്കിലും ഓഫറുണ്ടോ തന്നെ ഒരു പത്ത് പയിനെട്ട് റുപ്പിയമ്മല് നിക്കുന്നോ അത് ശരി ആ എന്നാക് ആയിക്കോട്ടെ എന്നാൽ ശരി ഓക്കേ